ഹലോ വി ഐൻ്റെ കസ്റ്റമർ കെയർ അല്ലേ ഓക്കെ എനിക്ക് എൻ്റെ ഈ കഴിഞ്ഞ മാസത്തെ മൊബൈലിൻ്റെ റീചാർജിൻ്റെ ബില്ലിൽ ഒരു ചെറിയ ഡൗട്ടുണ്ട്

അപ്പം അതിന് അത് ശരിക്കും ഉള്ളതാണെങ്കിൽ അത് എന്ത് കാരണത്താൽ എന്ത് വിഷയത്തിലാണോ എക്സ്ട്രാ ചാർജ് വന്നിരിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടല്ലേ അതോ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പഴിച്ചതാണോ എന്ന് അറിയണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴച്ചതാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എനിക്ക് റീഫണ്ട് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ആ ഓക്കെ ആ സാധാരണ ഇത്ര ഉണ്ടാകാറില്ല കഴിഞ്ഞ മാസത്തൊന്നും ഇത്രയും ഉണ്ടായിട്ടില്ല സാധാരണ മാസങ്ങളിൽ എനിക്ക് ഇത്ര ബിൽ ഉണ്ടാകലില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് അന്വേഷിച്ചത് ആ ശരി എൻ്റെ നമ്പർ ഒൻപത് ഒൻപത് ഒൻപത് അഞ്ച് അഞ്ച് അഞ്ച് നാല് അഞ്ച് ആറ് അഞ്ച് ആ ഓക്കെ ഓക്കെ താങ്ക്സ്